ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല അപകടങ്ങളുമാണ് കുളത്തിൽ മുങ്ങി പുഴയിൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല അപകടങ്ങളും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമാണ് നീന്തൽ പഠിക്കുക എന്നത് അത് പഠിക്കുന്നതിന് മുന്നേ നമുക്കതിൻ്റെ എങ്ങനെയാണ് എന്ത് സ്വയം പോയി ഒരിക്കലും ആരും നീന്തൽ പഠിക്കാൻ ശ്രമിക്കരുത് അത് ഭയങ്കര അപകടകരമാണ് നമുക്ക് ഇനി കുറേ പല സ്ഥലത്തും ട്രെയ്നർമാരുണ്ട് പഠിപ്പിക്കുന്ന ട്രെയ്നർമാരുണ്ട് സ്വിമ്മിങ് പൂള് അങ്ങനെ ഒക്കെ പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നീന്തലറിയും എനിക്ക് ഒന്നും കൂടെ ശ്രമിച്ചാൽ നീന്താൻ കഴിയും നല്ല പോലെ നീന്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടെ പോയി ആരും വെള്ളത്തിലിറങ്ങാതിരിക്കുക പിന്നേ എന്ന് വച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ നീന്തൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് പോയെങ്ങാനും അതു പോലെ നല്ല കുത്തൊഴുക്കുള്ള പുഴ തോട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയി നീന്താൻ ആദ്യം തന്നെ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ കുറച്ച് കുളമോ ചെറിയ കുളം അല്ലെങ്കിൽ ചെറിയ സ്വിമ്മിങ്ങ് പൂള് അങ്ങിനെ ഒക്കെ ഉള്ള സ്ഥലത്തെവിടേലും പോയിക്കൊണ്ട് നല്ല വണ്ണം നിങ്ങൾക്ക് നീന്തൽ നല്ല അറിയാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുഴയിലും തോട്ടിലുമൊക്കെ പോയി നീന്താൻ ശ്രമിച്ചാൽ മതി പിന്നെ നിങ്ങൾ നീന്തൽ പഠിക്കുക ആണെങ്കിൽ നിങ്ങൾ പേരൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ബ്രദറ് സിസ്റ്ററ് അങ്ങനെ അല്ലങ്കി അവിടെ ട്രെയ്നറ്മാർ ഒക്കെ ഉണ്ടാവും അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ വേണം നിങ്ങൾ പഠിക്കാൻ അതേ പോലെ ട്യൂബ് വച്ചിട്ട് നീന്താൻ അതെ പോലെ ബോട്ടിലൊക്കെ വച്ച് നമ്മൾ അതിൽ വച്ച് അതിൽ കിടന്ന് നമ്മൾ നീന്തൽ അങ്ങനെ ഒക്കെ നമുക്ക് നോക്കാം ഇത് നമ്മൾ യൂ ട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എത്ര എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ എത്ര എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണും അപ്പം നിങ്ങൾ ഒരിക്കലും അതൊന്നും ഒറ്റക്ക് സ്വയം പോയി നിങ്ങളിതൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഭയങ്കര അപകടങ്ങൾ വരും അതുകൊണ്ട് നിങ്ങൾ കൂടെ ഫ്രണ്ട്സാണ് ബ്രദറാണ് സിസ്റ്ററാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല അപകടം സംഭവിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടകുമ്പോൾ മാത്രമേ നിങ്ങൾ അതിന് മുൻ കയ്യെടുത്ത് ഇറങ്ങാൻ പറ്റു ഓക്കേ പിന്നെ നിങ്ങൾക്ക് നീന്താൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ വെള്ളത്തിലിറങ്ങാൻ പേടിയാണ് അങ്ങനെയുള്ളവരും ഉണ്ടാവും അങ്ങനെ ള്ളവർക്ക് മോണിങ്ങിലൊക്കെ നമ്മൾ വ്യായാമം നല്ല വ്യായാമമാണ് നീന്തൽ അപ്പം നിങ്ങൾ മോണ്ണിങ്ങിലൊക്കെ വീട്ടുകാരോ അല്ലേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മോണിങ്ങിലൊരു വ്യായാമം ആവും നമ്മൾക്കിത് ആ പേടി മാറിക്കിട്ടും ഒരു നീന്തലറിയാന്നുള്ളത് അത്യാവശ്യമാണ് അപ്പം പിന്നെ നമുക്ക് നീന്തലും പഠിച്ച് കിട്ടും ഒരു വ്യായാമം കിട്ടും നമ്മുടെ പേടി മാറിക്കിട്ടും അപ്പം മോണിങ്ങിലൊക്കെ അടുത്തെവിടെങ്കിലുമൊക്കെ ചെറിയ കുളമോ ചെറിയ സ്വിമ്മിങ്ങ് പൂളൊക്കൊയുണ്ടെങ്കിൽ അവടെ എവിടെ എങ്കിലുമൊക്കെ പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നങ്ങനെ ഒരു ദിവസം കുറച്ച് കുറച്ച് കുറച്ച് ടൈമെടുത്ത് പഠിച്ചാൽ മതി ഒരു ദിവസം തന്നെ കുറേ ടൈമെടുത്ത് പഠിക്കരുത് ആ ഇന്നൊരു കുറച്ച് ടൈംമ് നാളെ കുറച്ച് ടൈംമ് അങ്ങനെ ദിവസം മോണിങ്ങിൽ കുറച്ച് കുറച്ച് ടൈമെടുത്ത് പഠിച്ചാൽ പിന്നെ എത്രയും പെട്ടന്ന് പഠിയോം ചെയ്യും നിങ്ങൾക്കത് നിങ്ങളെ ശരീരത്തിനും നല്ലതാണ് നിങ്ങൾ നിങ്ങളെ പേടിയൊക്കെ മാറി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ നീന്തൽ പഠിച്ചാൽ പിന്നെ നിങ്ങളതൊരിക്കലും മറക്കില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നീന്തൽ പഠിക്കുക അതും നിങ്ങൾ നല്ല ജാഗ്രതയോട് കൂടി വേണം പഠിക്കാൻ